ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൂന്നു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് അഞ്ചു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ്